ആ ഹലോ ആ ഞാൻ സവാദ് ആണ് ആ പ്രിൻസിപ്പൽ അല്ലേ ഇത്

അതെ ഫാദർ അല്ലേ പിന്നെ എൻ്റെ കുട്ടി നബ്ഹാൻ്റെ ഫാദർ ആണേ നബ്ഹാന് ഒരു രണ്ടുമൂന്ന് ദിവസത്തെ ലീവ് വേണമായിരുന്നു അതായത് വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ സെവൻത് സ്റ്റാൻഡേർഡിൽ ആ സെവൻത് സ്റ്റാൻഡേർഡിൽ മീന മാഡം ഓ അതെയോ അപ്പോൾ സ്കൂളിൽ വരേണ്ടി വരുവോ സ്കൂളിൽ വന്ന്

ഓ ആ ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ വേറെ ആ ആ അതെയതെയതെ ആ അതൊക്കെ ചെയ്യാം പിന്നെ ഞാൻ ഓക്കെ വേറെ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ